വായന ശീലം കൂട്ടാൻ വേണ്ടിയിട്ട് അച്ചടിച്ച പുസ്തകങ്ങളാണ് നല്ലത് പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഇലക്ട്രോണിക്ക് യുഗത്തിൽ ഇലക്ട്രോണിക്ക് പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ട് ഇലക്ട്രോണിക്ക് പുസ്തകങ്ങളും പതിപ്പുകളൊക്കെ എളുപ്പമാണ് നമ്മൾക്ക് ഫോണിൽ എവിടെ വേണമെങ്കിലും എനി ടൈം നമുക്ക് കൊണ്ടുപോവാം ബുക്കാവുമ്പം കുറച്ച് ഇതുണ്ടല്ലോ അപ്പോൾ നമ്മളെ ബാഗിലെല്ലാം കൊണ്ടുപോകുമ്പം ഫോണാകുമ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോവാം പിന്നെ നമുക്ക് ഈസി ആയിട്ട് എവിടെയിരുന്ന് വേണമെങ്കിലും വായിക്കാനൊക്കെ കഴിയുന്നുണ്ട് പിന്നെ വച്ചാൽ കണ്ണിന് പ്രശ്നമൊക്കെ ഉള്ളവർക്ക് പ്രശ്നമാണ് ചെറിയ അക്ഷരങ്ങളാണ് പിന്നെ ഒരുപാട് നേരം ഫോണിൽ നോക്കിയിരിക്കുന്നതുകൊണ്ടൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ബുക്കാവുമ്പം അങ്ങനത്തെ പ്രശ്നം ഇല്ല പക്ഷേ ഒരു സ്ഥലത്തിരുന്ന് വായിക്കണം എന്നെയുള്ളു അത് നമ്മൾക്ക് എന്താ പറയുക എല്ലാ സ്ഥലത്തിരുന്ന് വായിക്കാനും പറ്റില്ല ബുക്കുകൊണ്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ എന്താ പഠിക്കുകയാണോ അങ്ങനെയൊക്കെ ചോദിക്കും പിന്നെ നമ്മൾ ഇങ്ങനെ ഓഡിയോ ബുക്കുകൾ കേട്ടിട്ടുണ്ട് ഓഡിയോ ബുക്കുകളിൽ എങ്ങനെയാണ് വച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കഥ നമ്മൾക്കിങ്ങനെ പറഞ്ഞു തരും നമുക്ക് അണ്ടർസ്റ്റാന്റ് നമുക്ക് കേട്ട് എവിടെ എവിടെയിരുന്ന് വേണമെങ്കിലും കേൾക്കാം അതാണ് ഓഡിയോ ബുക്കുകൾ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഇപ്പം ആക്സപ്റ്റബിൾ ആയിട്ടുള്ളത് ഇലക്ട്രോണിക്ക് പതിപ്പുകളാണ്